ഇപ്പം ഏതു തരം പാചകമാണ് നിങ്ങൾക്കിഷ്ടം എന്നു വച്ച് കഴിഞ്ഞാൽ എനിക്ക് മുട്ട പൊരിക്കാനാണ് ഇഷ്ടം എന്താ പറഞ്ഞാൽ ഇപ്പൊ ഒരുനേരം കറി ചോറുണ്ണാൻ കറിയില്ല പറഞ്ഞാൽ മുട്ട പൊരിച്ചിട്ടേ നമുക്ക് ചോറുണ്ണാൻ പറ്റു എന്താ പറഞ്ഞാൽ മുട്ട ഒരു പല രീതിയിൽ പൊരിക്കാം ഓംലെറ്റ് അടിക്കാം മുട്ട പൊരിക്കാം ഡബിൾസ് ഡബിളടിക്കാം സിംഗിളടിക്കാം മുട്ട അതുകൊണ്ട് മുട്ട ഉള്ളതുകൊണ്ട് മുട്ടയോട് ഉള്ള ഉപയോഗം പറഞ്ഞാൽ അതാണ് ചോറുണ്ണാൻ കറിയില്ല പറഞ്ഞാൽ മുട്ട പൊരിച്ചിട്ടെങ്കിലും ഒരുനേരം നമുക്ക് ചോറുണ്ണാം അതുകൊണ്ട് മുട്ട പൊരിക്കുക ഇപ്പം എങ്ങനെയാണെന്ന് വച്ചാൽ ഉള്ളി അരിയുക ഇങ്ങനെ ഉള്ളി അരിഞ്ഞുട്ടും പൊരിക്കാം ഉള്ളി സാധാ സാധാ ഓംലെറ്റും അടിക്കാം മുട്ട മുട്ടയ്ക്ക് ഉള്ളി അരിഞ്ഞിട്ടും പച്ചമുളകരിഞ്ഞിട്ടും വേണമെങ്കിൽ മുട്ട പൊരിക്കാം അപ്പോൾ ഏറ്റവും ടേസ്റ്റ് അതു നമുക്ക് ഇപ്പോൾ ഒന്നു തന്നാൽ അതിലേക്ക് നമ്മൾ പൊരിച്ചു കഴിക്കാറുണ്ട് മുട്ട കൊണ്ടുള്ള ഉപയോഗം അതാണ് പിന്നെ വൈകുന്നേരം ഫുഡില്ല ഫുഡ് കഴിക്കാൻ കറിയില്ല പറഞ്ഞാൽ വീട്ടിൽ മുട്ട ഉണ്ട് പറഞ്ഞാൽ നമുക്ക് ഒരുനേരം ഫുഡ് കഴിക്കാൻ മുട്ടപൊരിച്ച് ചോറുണ്ണാം മുട്ടയുടെ ഉപയോഗം മുട്ട പറഞ്ഞാൽ ഇതു നമ്മളെ ശരീരത്തിനും നല്ല ഒരു ഇതാണ് നല്ലൊരു സാധനമാണ് മുട്ട കാത്സ്യം അതിന് മുട്ടയിൽ കാത്സ്യമാണ് കാത്സ്യമാണ് മുട്ട നമ്മുടെ ശരീരത്തിൽ അപ്പോൾ അത് ഒരുപാട് ആകാനൊന്നും പാടില്ല എന്നാൽ കുറയാനും പാടില്ല മുട്ട കഴിക്കുമ്പോൾ ഒരുപാട് കഴിക്കാൻ ഭക്ഷണമാണ് എന്താ പറഞ്ഞാൽ മുട്ട അത്യാവശ്യം കുറച്ചൊക്കെയേ കഴിക്കാൻ പാടുള്ളു അതിൽ മഞ്ഞയൊക്കെ നമുക്ക് നല്ല പ്രശ്നമുള്ള സാധനമാണ്